ആ ഞാൻ എന്നാണ് പോകുന്നത് പതിനഞ്ചാം തിയതി അഹ് എവിടെ അഹ് എന്നാൽ അണക്കരയിൽ പോകാം ആ അവിടെ അവിടെ റേറ്റ് എത്രയാണെന്നൊക്കെ അറിയാമോ

അഹ് റേറ്റ് അമൌണ്ട് എത്രയാണ് അവിടെ അതെയോ അവിടെ താമസ സൗകര്യമൊക്കെ ഉണ്ടോ ആണോ അച്ഛന്മാരൊക്കെ ആണോ ധ്യാനിപ്പിക്കുന്നത്

ആ ആണോ ഫാമിലിയായിട്ട് പോകാൻ പറ്റുവോ ആഹ് അഹ് പിന്നെ പിള്ളേർക്ക് പ്രത്യേകം ഉണ്ടോ അഹ് അ അവിടുത്തെ നമ്പറൊന്ന് തരണേ അഹ് സെഹിയോൻ എങ്ങനെയുണ്ട്

ആഹ്ഹ അഹ് അഹ് സെഹിയോനും നല്ലതാണെന്ന് പറയുന്നത് കേട്ടല്ലോ അത് സിസ്റ്റർമാര് നടത്തുന്നതാണെന്ന് പറയുന്നത് കേട്ട് അഹ് കൊല്ലന്താനത്ത് ഉണ്ട് അത് സിസ്റ്റേഴ്സിൻറ്റെ അല്ലെ അഹ് അഹ് ഇനിയാണോ നല്ലത് അച്ചന്മാരുടെയാണോ സിസ്റ്റേഴ്സിൻറ്റെയാണോ നല്ലത് മ്ഹ മ്ഹ മ്ഹ മ്മ് മ് ആരാധന ഉണ്ടോ ആരാധന ഉണ്ടോ അഹ് കൂടെ കൂടെ ഉണ്ടോ എല്ലാത്തിനും കൂടെ അഞ്ഞൂറ് രൂപയല്ലെ ഉള്ളു ഭക്ഷണമോ ഭക്ഷണമൊക്കെയോ ഭക്ഷണമൊക്കെ നല്ലതാണോ ആണോ ഒരാൾക്കല്ലേ ഒരാൾക്ക് അല്ലെ അഞ്ഞൂറ് രൂപ അഹ് അഹ് ഓക്കേ ഓ ഓക്കേ ശരി ബൈ